ഈ ദൈവ വിഗ്രഹങ്ങളെന്നുപറഞ്ഞാൽ നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ ഉത്സവങ്ങൾക്കായിട്ട് നമ്മൾ നമ്മുടെ ഓരോ പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പള്ളികളിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ദൈവമാണ് നമ്മുടെ വിഗ്രഹമായിട്ടു നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ചു നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറൊന്നുമില്ല നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു രൂപമുണ്ടല്ലോ ആ രൂപത്തിലാണു നമ്മൾ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ആ വിഗ്രഹത്തോടു പ്രാർത്ഥിക്കുമ്പോളാണ് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഈശ്വരനാണ് നമ്മുടെ വിഗ്രഹം എന്നാണ് പറയാറുള്ളത്